പണ്ടെടുത്ത ഫോട്ടോ ഉണ്ടോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടെടുത്ത ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെയുണ്ട് പിന്നെ പുതിയ പുതിയ ഫോട്ടോയും പഴയ ഫോട്ടോയും തമ്മിലുള്ള ബന്ധമെന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫോട്ടോകളൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താ ഒരുമാതിരി എഡിറ്റ് ചെയ്ത് കുറച്ച് കളറൊക്കെ കൂട്ടി അപ്പം നമ്മൾ കുറച്ചു കൂടി അതിൽ നിന്നും പഴയതിൽ നിന്നും പുതിയതായിട്ട് കുറച്ചു കൂടി മെച്ചപ്പെടുത്താൻ നോക്കുന്നതാണ് ഇപ്പോഴത്തെ ഫോട്ടോസുകളൊക്കെ അങ്ങനത്തെ എന്താ ഒരു ഫോട്ടോ നമ്മൾ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എത്രയൊക്കെ എഡിറ്റ് ചെയ്യാമോ അത്രയും രീതിയിൽ നമ്മൾ എഡിറ്റൊക്കെ ചെയ്തിട്ടേ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യത്തുള്ളു അപ്പം എന്താ ഇപ്പോഴത്തെ ഫോട്ടോ നമുക്കൊരു പുതുമയുടെ അല്ല എന്താ ഇപ്പോഴത്തെ നമ്മുടെ മുഖം എന്താ ഒരു ചെറിയ രീതിയിൽ നമ്മളെ പുതു തലമുറയിലേക്ക് കൊണ്ടു വരുന്ന രീതിയിലുള്ളൊരു ഫോട്ടോസൊക്കെ നമ്മുടെ എന്നൊക്കെ പറയാം അപ്പം നമ്മൾ എന്താ ഈ കുറച്ചു കൂടി കളർ ചെയ്തി കളർ കളറടുപ്പിച്ച് പിടിപ്പിച്ച് ആ ഒരു രീതിയിലൊക്കെയാണ് ഇന്നത്തെ കൂടുതൽ ഫോട്ടോസൊക്കെ പറയുന്നത് ഇപ്പം പക്ഷേ ആദ്യത്തെ ആദ്യ കാലങ്ങളിൽ ഫോട്ടോയെന്നു വെച്ചു കഴിഞ്ഞാൽ ശരിക്കും അപ്പം നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും നമ്മൾ പഴയക്കാലം അപ്പം അതെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാം ഒത്തിരി സന്തോഷവും എന്താ ഒത്തിരി സന്തോഷം പിന്നെ നമ്മൾ പണ്ടിങ്ങനെയാണല്ലോ ഇരുന്നത് കാണാൻ കുറച്ചു കൂടി ഇതായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ മുഖം മാറിപ്പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ വളർച്ച അതൊക്കെ നമ്മുടെ ഫേസിൽ ഫെയ്സിൽ നമ്മുടെ മാറ്റങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്താ ചോ എന്താ നമുക്ക് നമ്മളിൽ തന്നെ ഒത്തിരി ഒത്തിരി വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ രീതിങ്ങളൊക്കെ ഓരോന്നും നമുക്ക് കണ്ടു പിടിക്കാൻ പറ്റും അപ്പം എന്താ പറയുക അതിൽ നിന്ന് പഴയതിൽ നിന്ന് പുതിയതിൽ പഴയതിൽ നിന്ന് നമ്മൾ കുറച്ചു കൂടി മെച്ചപ്പെടുത്തു മെച്ചപ്പെട്ടു അത് പുതിയ പുതിയ നമ്മൾ പുതിയതായി നമ്മുടെ മുഖം ഇങ്ങനെ നമ്മൾ കുറച്ച് വലുതായി എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ ഫോട്ടോ അപ്പം ഇപ്പോഴത്തെ രീതിയിലുള്ള ഫോട്ടോയാണെങ്കിലും എന്താ ഇപ്പോഴത്തെ ഫോട്ടോയാണെങ്കിൽ നമുക്ക് കുറച്ചു കൂടി എഡിറ്റ് ചെയ്ത് നമ്മളിൽ കുറച്ചു കൂടി കളറൊക്കെ കൂട്ടി കളറൊക്കെ കൂട്ടി കളറൊക്കെ കൂട്ടി അങ്ങനെ ഒരു മൈൻഡിൽ അതായത് എന്നാ നമ്മുടെ മുഖത്തിനെ തന്നെ നമ്മൾ നമ്മുടെ ശരിക്കും മുഖം ഇങ്ങനെയല്ല പക്ഷേ അതിനെയും കുറച്ച് കൂട്ടി കളറൊക്കെ കൂട്ടി കുറച്ച് എന്താ എഡിറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ പുതിയ രീതിയിൽ പുതിയ രീതിയിൽ നമ്മളെ എന്താ മാറ്റി മറിക്കുന്ന ഫോട്ടോസുകളൊക്കെ ഇപ്പം നമ്മളിപ്പം ഫോട്ടോ എടുത്തിട്ടും അങ്ങനെ എടുക്കത്തുള്ളൂ ആ ഒരു ഇതാ അപ്പം പഴയ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ആ പഴയ പഴയ ഫോട്ടോയോട് നമുക്കൊരു എന്താ ഒരു ഒരു നോസ്റ്റാൽജി ഒരു ഫീൽഡ് ഫീലായിരിക്കും ഓൾഡ് ഈസ് ഗോൾഡെന്നൊക്കെ പറയുന്ന പോലെ എന്താ ഒരു ഒരു നല്ല രീതി ഒരു ചെറിയ നമ്മളെ നമ്മളായി തന്നെ കണ്ടൊരു ഫോട്ടോ ഒത്തിരി ഫോട്ടോസ് ഒക്കെയുണ്ട് അപ്പം മാറി മാറ്റി മറിക്ക നമ്മുടെ തന്നെ മാറ്റി മറിക്കുന്ന കുറേ ഫോട്ടോസ് ഒക്കെയുണ്ട് അപ്പം എന്നാൽ എന്താ ഇപ്പം ന നമുക്ക് ആദ് കാലങ്ങളിൽ എന്താ നമ്മുടെ പണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് എന്താ പറയുക ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ എന്താ പറയുക അതിനെ എഡിറ്റ് ചെയ്യാനോ അതിനൊന്നു കൂടി കുറച്ചു കൂടി കളർ വെപ്പിക്കാനോ അപ്പം അതിനൊന്നും നമുക്ക് സമയം കിട്ടിയാൽ അതൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ ആയതു കൊണ്ട് ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ ടെക്നോളജി വളർന്നതിൻ്റെ ഫലമായിട്ടൊക്കെ ആയത് കൊണ്ടായിരിക്കും നമുക്ക് എന്താ പറയുക ടെക്നോളജി വളർന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താ ചേഞ്ചാക്കാനും നമ്മുടെ സമൂഹത്തിൻ്റെ വികസനമൊക്കെ ആയിരിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കാണിക്കേണ്ടതൊക്കെ വരുന്നതായിരിക്കും ഓരോത്ത കാലം മനസ്സ് മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറുന്ന ഒരു മൈൻ്റായി പോകുമല്ലോ അപ്പം ആ ഒരു രീതിക്ക് നമ്മുടെ നമ്മുടെ ഫോട്ടോസ് തന്നെ നമ്മൾ എന്താ പുതുക്കുക പുതുക്കുക തന്നെ നല്ല രീതിയിലാക്കി എടുക്കുക അത് ഇപ്പസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനാണെങ്കിലും പോസ്റ്റ് ചെയ്യാനൊക്കെ പോസ്റ്റ് ചെയ്യാനപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതും പിന്നെന്താ നമ്മൾ റീലൊക്കെ ചെയ്തിട്ടെന്നാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തെ അതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുക പക്ഷെ ആദ്യ കാലങ്ങളിൽ ആദ്യത്തെ ഒക്കെ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ആ നമ്മളിങ്ങനെ ആയിരുന്നല്ലെ ഇരുന്നത് അപ്പോൾ എന്താ അപ്പൊരു എന്താ നമുക്കു തന്നെ ഒരു രസമാണ് ഇപ്പോഴത്തെ ഫോട്ടോയും അപ്പോഴത്തെ ഇപ്പോഴത്തെ ഫോട്ടോയും പണ്ടത്തെ ഫോട്ടോയും എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കെന്തൊരു എന്തൊരു ഒരു പുതിയ ഫീലാണ് ആദ്യമത് കുഞ്ഞിലെ മുതൽ നമ്മൾ ഫോട്ടോ എടുത്ത് എടുത്തെടുത്തെടുത്ത് കുഞ്ഞിലെ മുതൽ നമ്മൾ ഫോട്ടോ എടുത്ത് എടുത്തെടുത്ത് എടുത്തെടുത്ത് നമ്മുടെ എന്നാ വലിയതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ചേഞ്ച് അതായത് ആ ഒരു ചേഞ്ചൊക്കെ ആ ചെഞ്ചൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്കൊരു ഒരു ഫീൽ എന്താ ഇങ്ങനെയായിരുന്നോ ആ ഒരു മൈൻ്റൊക്കെ വന്നു പോകുന്നത് ഇപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എന്താ പറയുക ആദ്യം പണ്ടത്തെ ഒരു പഴയ ഫോട്ടോയെന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വൈകാരികമായ ഒരു മൂല്യം ഉണ്ടെന്ന് നിങ്ങ ഒരു വൈകാരികമായൊരു മൂല്യം നമുക്ക് ഉണ്ടെന്നു കാണിക്കുന്നൊരു ഫോട്ടോയാണ് പണ്ടത്തെ നമ്മളാദ്യ കാലങ്ങളിലെ നമ്മളാദ്യം എടുത്ത ഫോട്ടോസൊക്കെ അപ്പം അത്രയും എന്താ പറയുക അത്രയും രസമായിരിക്കും പണ്ടത്തെ ഫോട്ടോയെന്നു പറഞ്ഞാൽ ഒരു നോസ്റ്റാൾജിയ അടിക്കുമെന്നു പറയുന്ന പോലെ ഒരു നല്ല രീതി ഒരു ഫോട്ടോ ആയിരിക്കും അപ്പം അതും ഇതും തമ്മിലുള്ള ഭയങ്കര ഡിഫറൻ്റുണ്ട് അപ്പം നമുക്കത്രയേ ഇഷ്ടപ്പെട്ട ഫോട്ടോയൊക്കെ ആണെങ്കിൽ നമ്മൾ കളയത്തില്ല ഇത് ഇരുന്നോട്ടേ അപ്പം എന്താ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം ഇപ്പം കല്ല്യാണത്തിനാണെങ്കിലും ഓരോന്ന് പിന്നെ കല്ല്യാണത്തിനാണെങ്കിലും ഒരാളുടെ കുട്ടിയുടെ ഒരു കൊച്ചിൻ്റെ മാമ്മോദീസക്ക് പോകുമ്പോഴാണെങ്കിലും എന്തിനൊക്കെയാണെങ്കിലും നമ്മൾ എന്താ പറയുക ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി ഫോട്ടോകളുണ്ടായിരുന്നു അപ്പം അതിലും നിന്നും അതിൽ നിന്നുപരി നല്ല ഒരു ടെക്നോളജിപരമായി വളർന്നു കൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഫോട്ടോസുകളൊക്കെയെന്നു പറയുന്നത്